ഞങ്ങളൊരു ദിവസം എന്താ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു അപ്പം അവിടെ നിന്ന് തൊഴുത് തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം സമയം ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ചായ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെന്നാൽ ഏതായാലും ഭക്ഷണം വീട്ടിൽ വച്ചിട്ടില്ല നേരത്തെ പോയതായിരുന്നു അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് കഴിക്കാം എന്നാണ് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അവിടെ കയറുകയുണ്ടായി അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ ആ അവിടെ കയറിയ സമയത്ത് അവിടെ നല്ല സദ്യ നല്ല വാഴയില നാക്കിലയിട്ടിട്ട് വിളമ്പുന്ന സദ്യയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്

വിലയുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സദ്യ നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ സദ്യ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കഴിച്ചതിനേക്കാളും കൂടുതൽ നല്ലൊരു ടേസ്റ്റായിട്ട് പിന്നെ അവർ നമുക്ക് ആ വിളമ്പിത്തന്ന രീതി പിന്നെ അതിലെ ഓരോന്നും ഓരോ വിഭവങ്ങൾ എടുത്ത് എടുത്ത് പറയുകയാണെങ്കിൽ അവിയൽ ഓലൻ കാളൻ അങ്ങനെ ഓരോ വിഭവവും പുളിയിഞ്ചി തൊട്ട് ഉപ്പു തൊട്ട് പരിപ്പ് കറി തൊട്ട് എല്ലാ വിഭവങ്ങളും ഇലയിൽ ഫുള്ളായിരുന്നു ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ആ ഒരു കഴിച്ച സദ്യയിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ നമുക്ക് വീണ്ടും എന്താണിനി അവർ കഴിക്കാനാഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പറയാനുള്ളത് അങ്ങാടിപ്പുറത്തെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലത്തെ സദ്യയെന്നേ പറയാനുള്ളൂ അത്രയും ടേസ്റ്റിയായിരുന്നു ഹസ്ബൻ്റ് ഗൾഫിൽ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ലീവിന് വന്ന സമയത്താണ് ഞങ്ങളത് പോയത് അപ്പം ഫസ്റ്റവർ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്കെപ്പോഴും നാടൻ ഭക്ഷണം കഴിക്കാനാവുമല്ലോ ഇഷ്ടം അപ്പം അങ്ങനെ പോയതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നാലുപേർ കഴിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് രണ്ട് ചോറ് ഞങ്ങൾ ആ ടേസ്റ്റുകൊണ്ട് പാർസല് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അത്രയും ടേസ്റ്റിയായിരുന്നു അവിടെ നിന്ന് കിട്ടിയ പായസം അവിടുത്തെ മോര് അവിടുത്തെ ആ ഒരു രസം അതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇത് ഈ വോയ്സ് ഞാൻ പറയുമ്പോൾക്കൂടി എൻ്റെ നാവിൽ ആ ഒരു ടേസ്റ്റ് അത്രയും നമ്മളെ ആകർഷിച്ചൊരു ടേസ്റ്റ് തന്നെയാണ് അത്